എനിക്കീന്ന് പറഞ്ഞാൽ കഴിവുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്നക്കാലത്ത് നന്നായി പാട്ട് പാടുമായിരുന്നു ഡാൻസ് കളിക്കും പിന്നെ ഗ്രൂപ്പ് സോങിനും എല്ലാത്തിനും സ കൂടുമായിരുന്നു ഇന്നിപ്പം നമ്മൾ അത് ഇന്നത്തെ കുട്ടികൾക്കെന്നു പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ കളിക്കുന്ന കുട്ടികളൊന്നും അല്ല ഞാൻ എൻ്റെ കാര്യത്തിന് പിന്നെ എല്ലാ കാര്യങ്ങളും നടത്തി സ്ക്കൂള് പോവാനും സ്ക്കൂളിൽ പല പാട്ടിനും എനിക്കേറ്റവും കൂടുതൽ ഇഷ്ടം പാട്ടാണ് പാട്ട് ഞാൻ എപ്പോഴും പാടാറുണ്ട് ഇപ്പോഴും ഞാൻ ഇടക്ക് മൂളിക്കൊണ്ടിരിക്കും പക്ഷേ പാട്ടിന് എനിക്ക് ഭയങ്കര താൽപ്പര്യം ഉള്ള ആളാണ് പാട്ട് പാടാൻ എനിക്കെന്നും നല്ല ഇതാണ് പക്ഷേ ഇപ്പം പിന്നെ അതിനൊന്നും നേരമില്ല നമ്മുടെ കഷ്ടപ്പാടും പ്രാരാബ്ധവും ആയിട്ട് അങ്ങനെ പോവാണ് പിന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുള്ളൂ അതുകൊണ്ട് എവിടെയും ഇപ്പം നമ്മൾ നമ്മളെ കുടുംബ ജീവിതമല്ലേ അപ്പം അത് അതിനൊന്നും പോന്നില്ല നമ്മളെ ചെറുപ്പകാലം പോലെ ആവുല്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ അതൊന്നും കാര്യമായിട്ടില്ല